ബൈക്കിങ് യാത്ര അത് ഒരു വളരെ നല്ല അനുഭവമുള്ളൊരു യാത്രയാണ് അത് ഒരുപാട് രൂപത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട് കൂട്ടം കൂട്ടം കൂട്ടമായി സംഘങ്ങളായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട് ഒറ്റക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് ഒറ്റക്ക് കൈ കാണിച്ച് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതുമാത്രം അല്ല ബൈക്കിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു വളരെ രസകരവും വളരെ ആനന്ദപൂർണ്ണവുമായ ഒരു രൂപത്തിലുള്ള ഒരു യാത്രയാണ് ബൈക്കിങ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇൽ മലകളിലുടെ മുകളിലു മുകളിലൊക്കെ പോയിട്ടുള്ളതും ദൂരയാത്രകൾ കശ്മീർ യാത്രകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ബൈക്കിൽ പോകുന്നവർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നവർ ഇതിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് നാട്ടിലെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ നമ്മളൊരു യാത്ര ചെയ്താലാണ് നമുക്ക് മറ്റുള്ള റൈഡേഴ്സിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു അറിവ് കിട്ടുക സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്ഥലത്ത് നിന്ന് യാത്രകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരാളെ കണ്ടുമുട്ടുന്നു അയാളിലൂടെ മറ്റൊരാളിലേക്ക് അവരിലൂടെ മറ്റൊരാളിലേക്ക് അതൊരു സംഘമാവുന്നു എല്ലാവരും ഒഴിവുള്ള സമയത്ത് എല്ലാവരും കൂടെ മറ്റൊരു യാത്ര പോകുന്നു അങ്ങനെ ഒരുപാട് വളരെ രസകരമായൊരു അനുഭവം തരുന്ന ഒരു സംഭവമാണ് സംഘമായിട്ടുള്ള ബൈക്ക് യാത്ര എന്ന് പറയുന്നത് പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒറ്റക്ക് ഒറ്റക്ക് ബൈക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് അതൊരു പ്രത്യേകതരം അനുഭവമാണ് ഒറ്റക്ക് എല്ലാവിധ കടമ്പകളും ഒറ്റക്ക് താണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്യുക അപ്പം ഇപ്പം കേരളത്തിൽ നിലവിലുള്ള ഒരു സംഗതിയാണ് എന്താ പറയുക കാശ്മീരിലേട്ടുള്ള യാത്ര കാശ്മീറൊക്കെ കാണാൻ വേണ്ടി പോവുക കാശ്മീരിലെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒറ്റക്ക് ബൈക്കിൽ പോവുക എന്നുള്ളതൊക്കെ അപ്പം ഈ ഒറ്റക്ക് പോകുന്നവർ അതൊരു പ്രത്യേകം മൈൻഡ്സെറ്റ് ആണ് അത് അങ്ങനെ എല്ലാവർക്കൊന്നും കിട്ടുന്ന ഒരു സംഗതിയല്ല അത് ഒറ്റക്ക് വളരെ ഒരുവിധം അധികം ഒന്നും ഉണ്ടാവില്ല എന്നാലും വളരെ ചുരുങ്ങിയ ആളുകളിൽ ആ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ വൈബ് വളരെ ജീവിതത്തിൽ വളരെ വൈബുള്ള ആളുകളായിക്കാരം അപ്പം എൻ്റെ ഒരു ഇഷ്ടം എന്ന് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് സംഘമായിട്ട് യാത്ര ചെയ്യാനാണ് ഇഷ്ടം ഒറ്റക്ക് ഒന്ന് സംഘമായിട്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ഒരു കൂട്ടമായി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരുപാട് ബെനഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഒരുപാട് കിട്ടും ഇപ്പം ഒറ്റക്കാവുമ്പോൾ ചിലപ്പോൾ ച്യൂഷണങ്ങൾക്ക് വിധേയമാകാം അതൊക്കെ ഒരു ചെറിയ സാധ്യതകളാണ് എങ്കിൽ പോലും കൂട്ടമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് അതിൽ പെട്ടതാണ് ഇതുപോലെയുള്ള ചൂഷണങ്ങളിൽ നിന്നൊക്കെ ഒഴിവാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂട്ടമായിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അപ്പം അത് ബൈക്കായാലും എങ്ങനെയായാലും കൂട്ടമായിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം